ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് എട്ട് പതിനൊന്ന് രണ്ടായിരത്തി മൂന്ന് പത്ത് ഒമ്പത് രണ്ടായിരത്തിപ്പത്ത് പതിനേഴ് എട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് അഞ്ച് ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്